നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടിലും തന്നെ എൽ പി ജി സിലിണ്ടർ ഉപയോഗിച്ച് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നവരാണ് ഓരോരുത്തരും നിരവധിയായ പ്രശ്നങ്ങൾ ഇതിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടിവരും ചില കുട്ടി ചില കുഞ്ഞ് കുട്ടികൾ ഉള്ള വീട്ടിൽ ആണെങ്കിൽപ്പോലും അവർ അറിയാതെ തന്നെ സിലിണ്ടർ ഓൺ ആക്കി വയ്ക്കുകയോ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കി വയ്ക്കുകയും ചെയ്താൽ വലിയ അപകടകരമായ ഒരു ഭീതിയിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ ആവശ്യം പാകം ചെയ്ത് ആവശ്യാനുസരണം കുറ്റി ഓഫ് ആക്കുക അല്ലെങ്കിൽ സിലിണ്ടർ ഓഫ് ആക്കുക എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതുപോലെതന്നെ ഓരോ വീട്ടിലും മുൻകരുതലായി അതിനോട് അടുത്ത് തന്നെ വെള്ളം വയ്ക്കുക കാരണം ലൈറ്റർ ഉപയോഗിക്കാതെ കുറ്റി ഓൺ ആക്കിയിടുന്ന സമയങ്ങളിൽ അടുപ്പിൽ തീ കത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുമല്ലോ കാറ്റ് ഊതിയോ ഗ്യാസ് സിലിണ്ടർ അടുപ്പ് കെട്ടുപോയാൽ തീ ഗ്യാസ് പകർന്ന് അപകടങ്ങൾ പതിയിരിക്കാൻ കാരണമുണ്ട് അതുപോലെതന്നെ ഈ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന നമ്മൾ എൽ പി ജി ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റു തീ എന്താ പറയുക ലൈറ്റർ അങ്ങനത്തെ സാധനങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുക കുട്ടികളെ മാറ്റി നിർത്തുക കുക്കർ കുക്കറിൽ പാകം ചെയ്യുമ്പോൾ എന്താ പറയുക പൊടിയരികഞ്ഞി പോലുള്ള ഭക്ഷണങ്ങൾ കുക്കറിൽ ഉപയോഗിക്കാതെ ഇരിക്കുക അതു പൊട്ടിത്തെറിച്ച് മാരകമായ അപകടങ്ങൾ ഒക്കെ സംഭവിക്കുന്ന ആകാറുണ്ട് അതിനാൽ പരമാവധി ആവശ്യാനുസരണം കഴിഞ്ഞാൽ കുറ്റി ഓഫ് ആക്കിയിടുക